നിങ്ങളുടെ സ്കില്ലെന്താണ് നിങ്ങളെന്താണ് സ്കില് കൊണ്ട് നിങ്ങള് ഉദ്ദേശിക്കുന്നത് സ്കില്ലാവുമ്പോള് പല സ്കില്ലുകള് കാണും നിങ്ങളുടെ സ്കില്ലെന്താണെന്ന് നിങ്ങളാദ്യം വിലയിരുത്തുക പലർക്കും പല സ്കില്ലുകളായിരിക്കും അതനുസരിച്ച് നിങ്ങൾ വിലയിരുത്തണം നിങ്ങള് നിങ്ങളെത്രത്തോളം സ്കില്ലിന് ഇമ്പോര്ട്ടൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങള് പേഴ്സണലായിട്ട് നിങ്ങള് ചിന്തിക്കേണ്ട കേസാണ് നിങ്ങള് എത്രത്തോളം സ്കില്ലിമ്പോട്ടൻറ്റ് കൊടുക്കുന്നത് നിങ്ങളെന്തൊക്കെ സ്കില്ലുകളാണ് നിങ്ങള് അച്ചീവ് ചെയ്യാനാഗ്രഹിക്കുന്നത് ഒരുപാട് സ്കില്ലുകളുണ്ട് ഈ ലോകമിപ്പോള് ഇപ്പോഴത്തെ ഇതില് ഇപ്പോള് വിദ്യാഭ്യാസമായാലും ഇതു പഠനമായാലും പല സ്കിൽ മേഖലകളായാലും കോഡിങ്ങായാലും പിന്നേ ഡിസൈനിങ്ങ് പിന്നെ ഗ്രാഫിക് ഡിസൈനിങ്ങ് അങ്ങനൊരുപാട് സ്കില്ലുകള് ഈ യുഗത്തിലുണ്ട് പിന്നെ ഒരുപാട് ഐഡിയാസ് യൂസെയ്യ അങ്ങനെ കുറേ നമ്മളീ ലോകത്തില് ജീവിക്കണമെങ്കില് മേയ്നായി സ്കില്ലുകള് എങ്ങനെ അച്ചീവ് ചെയ്യണമെന്ന് നിങ്ങള് വിലയിരുത്തേണ്ടതാണ് അപ്പോള് സ്കില്ലുകളിപ്പോള് ഉദാഹരണത്തിന് ചിലർക്ക് ഡിസൈൻ ഫീൽഡിലോട്ടായിരിക്കും താല്പര്യം അപ്പോള് നിങ്ങളാ സ്കില്ലിലോട്ട് എങ്ങനെ പോകണം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ഓക്കെ രണ്ടാമത്തെ ക്വൊസ്റ്റ്യനാണ് ഇത് ഗോൾ ഒരുപാട് പേർക്ക് ചിലർക്ക് മിഡ് റേഞ്ചാണ് ഗോളെന്താണ് നിങ്ങളതൊന്നു ചിന്തിക്കുകയാണ് നിങ്ങള് നിങ്ങളെ ലൈഫിൽ നിങ്ങളെന്തായിത്തീരണം എന്ന് നിങ്ങള് ചിന്തിക്കേണ്ട കേസാണ് നിങ്ങള് എത്രത്തോളം ഉയരണം നിങ്ങളുടെ ഇന്കം നിങ്ങള് എത്രത്തോളം നിങ്ങള് വച്ചിരിക്കുന്നു നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി നിങ്ങള്ക്ക് എന്താണ് നിങ്ങളുടെ മെൻറ്റാലിറ്റി എന്താണ് അതാണ് ഗോൾ ഓക്കെ ഓരോത്തരും ഇന്നു തന്നെ ഒരു പേപ്പറെടുത്ത് നിങ്ങളുടെ ഗോള് എന്താണ് എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തണം നിങ്ങളെത്രത്തോളം നിങ്ങളുടെ ഗോള് ആഗ്രഹിക്കുന്നു നിങ്ങള് ഇത്ര വർഷം കഴിഞ്ഞ നിങ്ങള് എന്താണ് നേടേണ്ടത് നിങ്ങളിത്ര വർഷം കഴിഞ്ഞ നിങ്ങളെത്ര മെച്ചുരിറ്റി ആവണം നിങ്ങളിത്ര വർഷം കഴിഞ്ഞ ഇപ്പോള് ഒരുപാട് പേര് സ്റ്റുഡൻസായിരിക്കും അപ്പോള് സ്റ്റുഡൻസായാൽ നിങ്ങള് ഈ എളക്കാലത്ത് എന്റഭിപ്രായത്തില് പറഞ്ഞാല് സ്റ്റുഡൻസുകളാണ് ഒരുപാട് മെച്ചം അപ്പോള് നിങ്ങള് സ്റ്റുഡന്റ്സെന്ന് പറഞ്ഞ് നില്ക്കരുത് നിങ്ങളുടെ ഗോളെന്താണ് നിങ്ങളൊരു പേപ്പറെടുത്തെഴുതുക ആദ്യം പറഞ്ഞ ഈ കേസ് സ്കില് സ്കില്ലെന്താണെന്ന് നിങ്ങള് നിങ്ങളേത് സ്കിലാണ് നിങ്ങളച്ചീവ് ചെയ്യേണ്ടതെന്നെഴുതണം അതുപോലെ പിന്നതുപോലെ തന്നെ വിദ്യാഭ്യാസം വേണോർക്ക് വിദ്യാഭ്യാസം അച്ചീവ് ചെയ്യാം അതുപോലെതന്നെ സ്കില് വേണം ഈ കാലഘട്ടത്തില് സ്കില്ലും മാന്റേറ്ററിയാണ് അപ്പോള് നിങ്ങളുടെ സ്കില്ലെന്താണെന്ന് നിങ്ങള് തന്നെ കണ്ടെത്തണം അതും എന്റെ സ്കില്ലല്ല നിങ്ങളുടെ സ്കില് അപ്പോള് നിങ്ങളെ സ്കില്ലെന്താണെന്നുവെച്ചാല് അത് നിങ്ങള് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതാണ് പിന്നെ ഗോള് നിങ്ങളേത് സ്കില്ലാണ് കണ്ടെത്തി ആ ഗോള് എത്രത്തോളം നിങ്ങള്ക്ക് വേണം അപ്പോള് നിങ്ങള് എത്രത്തോളം ആ സ്കില് നിങ്ങള് നാളെ ഏത് പൊസിഷനിലെത്തണം നിങ്ങളേതൊക്കെ ലെവലിലോട്ട് മാറണം ഇനി മൂന്നാമത്തെ കേസ് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ലൈഫിൽ വിജയിക്കാൻ വേണ്ടി മൂന്നാമത്തെ കേസ് പ്രിസപ്ഷൻ നിങ്ങള് ഏത് സ്കില്ലാണ് എടുത്തത് ആ സ്കില്ലിനോട് നിങ്ങൾ ഇണ ചേരണം അപ്പോള് സ്കില്ലുകളാകുമ്പോള് പല കാര്യങ്ങളിലോട്ടും ഇണ ചേരാം അ പിന്നെ ഒരുപാട് കാര്യങ്ങളിലോട്ട് ഇതാവാം സ്കില്ലുകള് പല രീതിക്കാണ് അപ്പോള് ആ സ്കില് നിങ്ങളെന്ത് സ്കില്ലാണ് അതേ രീതിക്കുള്ള പ്രെസപ്ഷൻ പ്രെസപ്ഷൻന്ന് പറയുമ്പോള് നിങ്ങളെന്താണ് അത് നിങ്ങളിതെന്തുചെയ്യണം ഒരു ബുക്കിലെഴുതി അത് എഴുതി പിടിപ്പിക്കണം ഓക്കെ ഇനി പിന്നെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കേസ് ബോഡീ ലാങ്ഗ്വേജ് അത് ഇമ്പോർട്ടൻറ്റ് കേസാണ് നിങ്ങള് നില്ക്കുന്നതും നിങ്ങള് നടക്കുന്നതും നിങ്ങള് എന്തൊക്കെ ചെയ്യണം നിങ്ങളീ സ്കില്ലും നിങ്ങളുടെ പെർസപ്ഷനും ഇതെല്ലാം കാരണം ബോഡി ലാംഗ്വേജ് നിങ്ങളൊഴികെ നാളെ ഒരിന്റർവ്യൂവിന് ചെന്നാല് അതപ്പോള് നിങ്ങളൊരു ബുക്കെടുത്തിട്ട് നിങ്ങളുടെ ബോഡീ ലാങ്വേജെങ്ങനെ ആകണം ഇതുവരെക്കൊള്ളത് നിങ്ങള് വിടണം നിങ്ങളുടെ ബോഡീ ലാംഗ്വേജെങ്ങനെ വേണം നിങ്ങളുടെ ഫിറ്റ്നസ് എത്രത്തോളം ഇമ്പോർട്ടൻറ്റാക്കണം ജിമ്മില് പോകുന്നവർക്ക് ജിമ്മില് പോകാം നിങ്ങള് എന്തായിരിക്കണെ ആ സ്കില്ലിനനുസരിച്ച് ഇതാക്കണം പിന്നെ നാലാമത്തെ കേസ് പ്രാക്ടീസ് സ്കില് പ്രാക്ടീസ് സ്കില് ഇമ്പോട്ടൻറ്റാണ് ഒരു കാര്യം എടുത്ത് കഴിഞ്ഞാല് നമ്മള് എഴുതുന്ന കേസിലായലും റൈറ്റിങ് സ്കില് വേണം അത് സ്പീക്കിങ് സ്പീക്കിങ് സ്പീക്കിങ് ഇമ്പോർട്ടൻറ്റ് കേസാണ് സ്പീക്കിങ്ങെന്ന് പറയുമ്പോള് നമ്മള് മലയാളം സംസാരിക്കുക ഇംഗ്ലീഷ് സംസാരിക്കുക ഏത് അദർ ലാങ്ഗ്വേജായിക്കോട്ടെ സ്പീക്കിങ്ങിൽ നിങ്ങളെത്രത്തോളം ഇമ്പോട്ടൻറ്റാണെന്നു നിങ്ങള് തന്നെ വിലയിരുത്തണം സ്പീക്കിങ് ഈസ് മസ്റ്റ് ഇമ്പോട്ടന്റ് സ്പീക്കിങ് നമ്മളെങ്ങനെ ചിന്തിക്കണം സ്പീക്കിങ്ങ് നമ്മളെങ്ങനെ ചെയ്യണം ഒരു ഇന്റർവ്യൂവിന് ചിലപ്പോള് ഒരുപാട് സ്പീക്കിങ്ങാണ് അത് നിങ്ങളോരോ യൂട്യൂബില് കയറി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഇപ്പോള് ഈ യുഗത്തില് നമുക്ക് സോഷ്യൽ മീഡിയ അവൈലബിളാണ് നിങ്ങളെന്താണ് നിങ്ങളെ സ്കില് അതാണ് നിങ്ങള് സെർച്ച് ചെയ്യുക യൂറ്റൂബില് നോക്കി എടുക്കുക അപ്പോള് നിങ്ങളതനുസരിച്ച് പഠിക്കുക നിങ്ങളൊരു ബുക്കെടുക്കുക ഞാൻ പറഞ്ഞ കാര്യം സ്കില് ഗോള് പെർസപ്ഷൻ വർക്കിങ് മെൻറ്റാലിറ്റി ആ വർക്കിങ് മെൻറ്റാലിറ്റി ഞാൻ പറഞ്ഞില്ലല്ലെ ഇപ്പോള് വർക്കിങ് മെൻറ്റാലിറ്റീന്നെ അപ്പോള് നിങ്ങള് ഏത് ചെയ്യണമെങ്കില് അതിന്റെകൂടെ ഹാഡ് വർക്ക് ചെയ്യണം നമുക്കാദ്യമൊരു ഇൻകമൊന്നും കിട്ടൂല്ലായിരിക്കും അപ്പോള് നിങ്ങള് ഇന്കം കിട്ടിയില്ലെന്ന നിങ്ങളെന്താണ് ചെയ്യാനുദ്ദേശിക്കുന്നത് അതിലോട്ടെത്തിപ്പെടാൻ ആദ്യമൊക്കെ നമ്മള് താഴ്ന്നുകിടക്കണം പക്ഷേ എന്നാലും നാളെ നമ്മള് ഈ താഴ്ന്നുകിടന്നാലും നമുക്ക് നാളെ ഉയർച്ചയിലെത്താം പക്ഷെ നിങ്ങളോരോരുത്തരും ഇന്കം എത്രയാണെന്നുവച്ചാല് നിങ്ങളാ ബുക്കിലെഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളിൽ ബോഡീ ലാങ്വേജെന്താണെന്നു വച്ചാല് അത് നിങ്ങളെഴുതി വച്ചിട്ടുണ്ട് അപ്പോള് അതനുസരിച്ച് നിങ്ങളാ ഇത് വർക്കിങ് മെൻറ്റാലിറ്റി കൂട്ടണം ഹാഡ് വർക്ക് മെൻറ്റാലിറ്റി വേണം ഓക്കെ അപ്പോള് ഇത്രയും കാര്യങ്ങൾ പിന്നെ നാലാമത്തെ കേസ് ബോഡിയിലാണ് സ്പീക്കിങ്ങ് ഓക്കെ ഇത്രയും പറഞ്ഞു പിന്നെ സ്ട്രെസ്സ് ഒരുപാട് പേർക്കും സ്ട്രെസ്സുകള് വരാം ഞാന് ഇത്രയും പറഞ്ഞത് സ്കില്ലുകള് അച്ചീവ് ചെയ്യുമ്പോള് ഒരുപാട് പേര് ഡൗണാവാം അപ്സെറ്റാവാം ഒരുപാട് കാര്യങ്ങള് നമ്മളെ ലൈഫിലുണ്ടാവും അപ്സെറ്റാവാന്നുവച്ചാല് ആരായാലും അപ്സെറ്റാവും അപ്പോള് നിങ്ങളെന്തു ചെയ്യണം നിങ്ങള് എന്തുകൊണ്ടാണ് നിങ്ങള് സ്ട്രെസ്സ് വന്നത് ചിലർക്ക് ഇതാവാം ഓരോരുത്തര് ഓരോ ഇതാണ് അപ്പോള് നിങ്ങള് അതിനനുസരിച്ച് മോട്ടിവേഷൻ ആവുക നിങ്ങള്തന്നെ സ്വയം ബിൽഡ് ചെയ്യുക അപ്പോള് നിങ്ങള് സ്വയം ബില്ഡ് ചെയ്യുകയാണ് നിങ്ങളുടെ ബുക്കിലൊന്ന് എഴുതുക ഞാൻ ഇതാണോ എന്താണ് എന്റെ ഇത് എന്താണ് എന്റെ നിലവാരം എന്താണ് എന്റെ സ്കിൽസുകള് എന്താണ് എന്റെ അച്ചീവ്മെൻറ്റ് എന്താണ് എന്റെ കാര്യങ്ങള് എല്ലാ നിങ്ങള് തന്നെ അച്ചീവ് ചെയ്തെടുക്കണം അതൊരു മസ്റ്റാണ് ഓക്കെ പിന്നെ എന്ത് ചെയ്യുമ്പോഴും നിങ്ങള്ക്കൊരു പെർസെപ്ഷനും ഇക്വാലിറ്റി പിന്നെ ഈക്വൽ റ്റു ഫ്രീഡം അത് നിങ്ങളെന്ത് ചെയ്യപ്പെടും നിങ്ങള് ഇഷ്ടപ്പെട്ട് ചെയ്യണം അതായത് ഫ്രീഡത്തോടെ നിങ്ങളിഷ്ടത്തോടെ ചെയ്യണം നിങ്ങളെ ആര് എന്തര് ചെയ്താലും നിങ്ങള് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞ കാര്യം നിങ്ങളെന്തര് ഇപ്പോള് ചിലർക്ക് ഫുട്ബോള് കളിക്കാൻ ഇഷ്ടമായിരിക്കും അപ്പോള് ഫുട്ബോള് കളിക്കുന്നിടത്ത് നമ്മള് ഇഷ്ടത്തോടെയാണ് ചെല്ലുന്നത് അതിന് നമുക്ക് പൈസ കിട്ടുമോ ഇല്ല ഒരിക്കലും ഫുട്ബോളിനും കേസുകളിനൊന്നും നമുക്ക് പൈസ കിട്ടൂല്ല കിട്ടും നമ്മളതിനനുസരിച്ച് അച്ചീവ് ചെയ്ത് നമ്മളാ ഒരു ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞാല് എത്തും അപ്പോള് നിങ്ങളെന്താണ് ഇപ്പോള് ചിലര് ഡിസൈൻ ഫീൽഡായിരിക്കും കോഡിങ് ഫീൽഡ് അപ്പോള് നിങ്ങളെന്താണ് അച്ചീവ് ചെയ്യാനാഗ്രഹിക്കുന്നത് അല്ലെങ്കില് കുറച്ച് പൈസയൊന്നും കിട്ടൂല്ലായിരിക്കും പക്ഷെ അപ്പോള് നിങ്ങള് പൈസ കിട്ടാത്തത് ആഗ്രഹംപോലെ നിങ്ങള് ചെയ്യാം പക്ഷെ അതില്നിന്ന് ഒരു വരുമാനം കൂടി കിട്ടിയാല് എങ്ങനെയിരിക്കും അപ്പോള് നിങ്ങള്തന്നെ സ്വയം ബുക്കില് ഞാൻ പറഞ്ഞ കാര്യങ്ങള് ചെക്കെയ്തെടുക്കുക ഓക്കേ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു